പഴയ തലമുറയുടെയും യുവ തലമുറയുടെയും പിന്നെ മെയിനായിട്ടുള്ള വ്യത്യാസമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഴയ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കല് വളരേ കുറവാണ് പക്ഷെ മറിച്ച് ഇപ്പം യുവ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് പിന്നെ ഫോണില് ഫുൾ ടൈം ഫോണില് ആ ഒരവസ്ഥയാണ് ഇപ്പോൾ നടന്ന് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലുള്ള യുവ തലമുറാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയാം നമ്മുടെ അമ്മമാരൊക്കെയാന്ന് പറയാം അവരൊക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് അതായത് നമ്മള് ഫോണിൽ കളിക്കുന്ന പോലെ എന്തായാലും അവരൊന്നും കളിക്കില്ല അവരൊക്കെ സാധാ അതായത് കട്ടപ്പെട്ടി പോലത്തെ ഫോണ് അങ്ങനത്തെ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവര് യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഫോണിൽ കളിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് കാരണം അവര് എപ്പൊഴും പറയുന്നുണ്ട് നമ്മള് അതായത് നമ്മള് ഫോണിൽ കളിക്കുന്നോണ്ടാ മര്യാദയ്ക്ക് അവരോട് സംസാരിക്കുകയും കാര്യങ്ങളൊന്നുമില്ല അതായത് ഫോണ് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളു എന്ന് പറയുന്നുണ്ട് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അതായത് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികള് വരെ ഫുൾ ടൈം ഫോണിലാണ് അത് മെയിനായിട്ട് അങ്ങനെ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറോണ കാലത്ത് അതായത് ക്ലാസും കാര്യങ്ങളൊക്കെ ഫോണിലായിരുന്നല്ലോ അപ്പോൾ പല കുട്ടികളും അതായത് ക്ലാസ്സൊന്നും ശ്രദ്ധിക്കാണ്ട് ഫോണില് തന്നെ കളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ രണ്ട് വർഷം അങ്ങനെ ആയപ്പോൾ പിന്നെ അവർക്ക് ഫോണ് കിട്ടാത്ത ഫോണില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി അപ്പം അങ്ങനെ ആ ഒരു പ്രശ്നം കൂടെ വന്നത് കൊണ്ടാണ് ഇപ്പം ഈ ഒരവസ്ഥ വന്നത്